പ്രധാനമായിട്ടും മതപരമായി ഉപയോഗിക്കുന്ന ഭക്ഷണമെന്നു പറഞ്ഞാല് പാച്ചോറ് നേര്ച്ച ദുക്റാനപ്പെരുന്നാളിന് നമ്മള് പാച്ചോറ് നേര്ച്ചയായിട്ട് കൊടുക്കും പിന്നെ എല്ലാവിധ പെരുന്നാളുകളിലും നമ്മള് കൊഴുക്കട്ട നേര്ച്ചയായിട്ട് കൊടുക്കും അതുപോലെ ഉണ്ണിയപ്പം ഇപ്പോള് മരിച്ചവരുടെ തിരുന്നാളുകളില് അല്ലെങ്കില് നമ്മള് പറയും ഏഴിന് അഞ്ചിന് എന്നൊക്കെ പറയുമ്പോള് ആ ചരമ ദിനത്തിന്റെ ഓര്മ്മയ്ക്കായിട്ട് നമ്മള് ഉണ്ണിയപ്പം കൊടുക്കുന്നതായിട്ട് സു അതല്ലേ അല്ലെങ്കില് നെയ്യപ്പം കൊടുക്കുന്നു അതുപോലെ അതിന്റെ കൂടെ മറ്റു പലഹാരങ്ങളും അതിന്റെ കൂടെ ചേര്ത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ഉത്സവങ്ങളുടെ സമയത്താണെങ്കിലും അവര് ഹിന്ദുക്കളുടെ ഹൈന്ദവ ആചാരമനുസരിച്ച് അവര് മലരും ശര്ക്കരയും പിന്നെന്നാ പഴവുമെല്ലാങ്കൂടെ ഞെരടി ചില നേര്ച്ചകള് കൊടുക്കും അതുപോലെതന്നെ അവരുടെ അരവണ പായസമെന്നു പറഞ്ഞെ ഒരു പായസം അവരമ്പലങ്ങളില് കൊടുക്കാറുണ്ട് അങ്ങനെ മതപരമായ രീതിയില് നോക്കുകയാണെങ്കില് നമ്മള് ഈ നേര്ച്ചകള്ക്ക് പ്രത്യേക പ്രാധാന്യമാണ് ഉള്ളത് വ്യത്യസ്ത ഉത്സവങ്ങള്ക്ക് വ്യത്യസ്ത ഭക്ഷണ സാധനങ്ങള് നമ്മളുപയോഗിക്കാറുണ്ട് പിന്നെ നമ്മള് അവര് മലയാറ്റൂര് മല കയറുമ്പോള് നമ്മള് തോമാശ്ലീഹയുടെ ഓര്മ്മയ്ക്കായിട്ട് നമ്മളവിടെ ചെല്ലുമ്പോള് നേര്ച്ച സാധനങ്ങള് ഇടാറുണ്ട് അതുപോലെ മറ്റു നേര്ച്ചകളെന്നു പറയാന് മാതാവിന്റെ എട്ട് നോമ്പിനെ പെരുന്നാളിനു നമ്മള് നേര്ച്ചകള് വാങ്ങിക്കാറുണ്ട് അതെന്തെങ്കിലും നേര്ച്ചാസാധനങ്ങൾ നമ്മള് കൊഴുക്കട്ടയായിട്ടോ അതുപോലെ മലരായിട്ടൊക്കെ നമ്മള് വാങ്ങാറുണ്ട് പിന്നെ മാതാവിന് ഹാരമായിട്ട് നമ്മള് പൂമാല ചാര്ത്താറുണ്ട് ഇതെല്ലാം എല്ലാ പെരുന്നാളുകള്ക്കുമുള്ള അല്ലെങ്കിലുല്ത്സവങ്ങള്ക്കുമുള്ള പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തില് ദൈവത്തോട് കാണിക്കുന്ന ഒരു നന്ദിയായിട്ടാണ് നമ്മള് ഇത് സൂചിപ്പിക്കുന്നത് നമ്മളേപ്പോലെ തന്നെയാണ് മറ്റുള്ളവര് എന്നുള്ള ആ ചിന്താഗതി വളര്ന്നു വരുവാന് ഇത് സാധിക്കും എന്ന് ഞാന് കരുതുന്നത് ഇതിലും പ്രത്യേകിച്ച് സാധനങ്ങള് എന്തെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചാല് പിന്നെ സ് നേര്ച്ചയായിട്ട് ഹൈന്ദവരുടെ ചട്ടങ്ങളനുസരിച്ച് അവര് പിന്നെ എന്ന് നെയ് ചില തേങ്ങയോ അല്ലെങ്കില് പൊതി അവല്പ്പൊതിയോ അതുപോലെ മറ്റു ഭക്ഷണ സാധനങ്ങളെ ഫുഡ്ഡായിട്ട് നമ്മള് നേര്ച്ച കൊടുക്കും കൊടുക്കുമല്ലോ ചില ആരാധനാ ആലയങ്ങള് ആശ്രമങ്ങളിലൊക്കെ ഭക്ഷണപ്പൊതികള് കൊടുക്കാറുണ്ട് അതുപോലെ ഭരണങ്ങാനത്ത് പോകുമ്പോള് നമ്മള് നേര്ച്ചയായിട്ട് നേര്ച്ചയൂട്ടുണ്ട് അതുപോലെതന്നെ പിന്നെ നേര്ച്ചേന്നന്നെ പുഴുക്ക് നേര്ച്ചയുണ്ട് ഇതെല്ലാം നമ്മുടെ ക്രിസ്റ്റ്യന് മതവിഭാഗങ്ങളുടെ നേര്ച്ച സാധനങ്ങളാണ് അതുപോലെ ഓരോ പെരുന്നാളുകള്ക്കും നമ്മള് നേര്ച്ചയായിട്ട് ഈ ലേലം വിളിക്കുന്നുണ്ടേ ഓരോ സാധനങ്ങള് നമ്മള് തന്നെ വകയായിട്ട് നമ്മള് വീടുകളില്നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങള് നേര്ച്ചയായിട്ട് കൊടുക്കും ഇതെല്ലാം നേര്ച്ച സാധനങ്ങളുടെ കൂട്ടത്തില്പ്പെടുന്നതാണ് ലേലം വിളിച്ചെ അതിന് തൊക്ക തുക നമ്മള് പള്ളിക്ക് സംഭാവനയായിട്ട് നല്കിപ്പോരുന്നു അപ്പോള് നേര്ച്ച സാധനങ്ങള് പല രീതിയില് നമ്മള്ക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും